എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം യന്ത്രം എന്ന മലയാറ്റൂരിൻ്റെ നോവലാണ് അതിൽ വർണ്ണത്തെക്കുറിച്ചും സെക്രട്ടറിയേറ്റിനെ കുറിച്ചും നമ്മൾ വായിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അതിൻ്റെ വിശദ വിവരങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരു പുസ്തകമാണ് യന്ത്രം വളരെ സുന്ദരമായി നല്ല ലളിതമായ ഭാഷയിലുടെ വായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പുസ്തകമായിട്ടു ഞാൻ മലയാറ്റൂരിൻ്റെ യന്ത്രത്തെ കാണുന്നു